ഹലോ ഞാനിപ്പോൾ തുരുത്തീലാണ് നിൽക്കുന്നത് എനിക്ക് ചങ്ങനാശ്ശേരി വരെ പോകണം അതിന് വേണ്ടി താങ്കളുടെ ക്യാബോട്ടോ ഒന്ന് വിടാവോ ഞാൻ നിങ്ങല്ക്ക് ലൊക്കേഷൻ പറഞ്ഞ് തരാം ചങ്ങനാശ്ശേരീന്ന് തുരുത്തീലോട്ട് പോവുന്ന റൂട്ടിൽ പിന്നെ യൂധാപുരത്ത് സെൻറ്റ് ജൂഡ് ഹോസ്പിറ്റൽൻ്റവിടെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അവിടുന്ന് വേണം എനിക്ക് പോവാനായിട്ട്